ഹലോ ആ അതെ സർ എന്താണ് ആ പറഞ്ഞോ സർ പറഞ്ഞോ സർ സർ സാറിൻ്റെ ഫസ്റ്റ് പേര് ഒന്നു പറയാമോ സർ ശമ്മാദ് ഓക്കെ സർ ആ എന്താ സർ വേണ്ടത് മസാലദോശ ഇപ്പോൾ സിംഗിൾ ആയിട്ട് എടുക്കുമ്പോഴേക്ക് അറുപത് വരുന്നുണ്ട് അത് കുറച്ചിട്ട് നാൽപ്പതിൻ്റെ അടുത്ത് വരും ആ ഹോൾസെയിൽ ആയിട്ട് ആ ഡെലിവെറിക്കുള്ള വണ്ടിയുണ്ട് സർ അതിനു ഫ്രീ ചാർജസാണ് ഇല്ല ചാർജസ് ഒന്നുമില്ല ഫ്രീ ആയിട്ടാണ് ആ അതെല്ലം ഉണ്ട് സർ വെജിറ്റബിൾ എല്ലാം വെജിറ്റേറിയൻ എല്ലാ ഫുഡും ഉണ്ട് സർ അതൊരു കോംബോ ആയിട്ടാണ് സർ വരുന്നുള്ളത് ഈ ഇഡലി മാത്രമായിട്ടല്ല ഇഡലി ദോശ അപ്പം അതങ്ങനെ ആ ഒരു കോംബോയിൽ കോംബോ ആയിട്ടാണ് വരുന്നുള്ളത് ആ എന്താണ് സർ കല്യാണം ആണോ ആ നിശ്ചയിപ്പ് ആ ഓക്കെ എത്ര ആൾക്കുള്ള പരിപാടി ആണ് സർ നൂറ് ആൾക്കുള്ള പരിപാടി ആണ് ആ സാറിൻ്റെ ഇഷ്ടം സാറിന് ഒന്ന് വിളിച്ചിട്ട് ഒന്ന് കൺഫേം ചെയ്താലുംമതി സാറിന് ഇപ്പം തന്നെ ഓർഡർ തന്നാൽ ആ ആ ഏയ് ഒന്നുമില്ല സർ ആ അതെ സർ ഓക്കെ സർ സാറിന് ഇപ്പം ഇപ്പോൾ സർ ഓർഡർ ചെയ്യുന്നുണ്ടോ അഡ്വാൻസ് പേയ്മെൻ്റ് ഞാൻ സാറിന് ജിപേ നമ്പർ അയക്കാം അതിലേക്ക് അയച്ചു തന്നാൽ മതി ആ ആ ഇത് എൺപത്തി ആറ് പൂജ്യം അറുപത്തി ആറ് അമ്പത്തി ഒന്ന് ഇരുന്നൂറ്റി മൂന്ന് ആ അതിലേക്ക് വാട്ട്സാപ്പ് അയക്കാമല്ലേ ഓക്കെ സാർ ഒന്നു അതിൻ്റെ ലിസ്റ്റ് സാധനത്തിൻ്റെ ലിസ്റ്റും കൂടി അയക്കാമോ സർ ഓക്കെ ഏത് പതിനെട്ടാം തീയതി അല്ലേ സർ ഓക്കെ ശരി സർ താങ്ക് യു